ചിത്രം വരയ്ക്കാനാഗ്രഹമുള്ളവർ ആണെങ്കിൽ ആദ്യം നമ്മടേതായിട്ടുള്ള രീതിയിൽ അല്ലെ നമ്മുടെ കഴിവ് വികസിപ്പിക്കാൻ വേണ്ടീട്ട് നമ്മൾ ചെറിയ രീതിയിൽ വരച്ച് തുടങ്ങി പിന്നീട് നമുക്കതിൽ എന്ത് പോരായ്മയാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് പരിഹരിച്ച് വീണ്ടും വീണ്ടും പ്രാക്റ്റീസ് ചെയ്ത് ചെയ്താണ് നമ്മൾ അതിനെ മെച്ചപ്പെടുത്തുന്നത് കൂടുതൽ അപ്പം നമ്മൾ അതിന് വേണ്ടീട്ട് നമുക്ക് തന്നറിയാം അതിന് എന്താണ് പോരായ്മ അല്ലേൽ അതിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടീട്ട് നമ്മളെന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തി വീണ്ടും വീണ്ടും പ്രാക്റ്റീസ്സ് ചെയ്യുക പിന്നെ ചിത്രം വരയ്ക്കാന്ന് പറയുന്നതൊരു കഴിവാണ് അപ്പം പെട്ടന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അപ്പം നമ്മൾ സ്ഥിരവായിട്ട് ചെയ്ത ചെയ്ത് അങ്ങനെ നമുക്ക് നിർത്താതെ നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്ത് ചെയ്ത് നമ്മളതിനെ ആ കഴിവ് വളർത്തിയെടുക്കാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റുള്ളവർ ചെയ്യുന്നത് നമ്മൾ അതേപടി കോപ്പി ചെയ്യാതെ നമുക്കത് അനുകരിക്കാൻ വേണ്ടീട്ട് ശ്രമിക്കാം അല്ലേൽ മറ്റുള്ളവർ ചെയ്യുന്നതിൽ എന്ത് അതിലുള്ളൊരു നല്ല കാര്യം നമുക്കത് അനുകരിക്കാൻ വേണ്ടി നോക്കാം പിന്നെ ചിത്രംവര പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പം നമുക്ക് അവൈലബിളായിട്ടുള്ളൊരു കാര്യവാണ് എന്ന യൂറ്റൂബ് ഒക്കെ അപ്പം യൂറ്റൂബിലക്കെയാണെങ്കിലിപ്പോൾ ഒത്തിരി നമുക്ക് വരയ്ക്കാൻ വേണ്ടീട്ടക്ക ഒത്തിരിപ്പേർ പഠിപ്പിക്കുന്നൊക്കെയുണ്ട് അപ്പം അത് കണ്ടിട്ട് നമുക്ക് നമ്മുടെ കഴിവങ്ങനെ വികസിപ്പിക്കാൻ വേണ്ടീട്ട് പറ്റും അപ്പോൾ നമുക്കെന്താണൊ ആവശ്യമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിന് ആ കഴിവ് വളർത്തിയെടുക്കുകാന്നുള്ളതാണ് അപ്പം പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഇപ്പം ഒരു പടം നമ്മളാദ്യം വരച്ചൊരു പടം അത് നന്നായില്ല എങ്കിൽ അടുത്തതിൽ നമ്മളെന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത് നമ്മൾ മനസിലാക്കി വീണ്ടുമത് ചെയ്യുകാന്നുള്ളതാണ് അപ്പം ഒന്ന് നമ്മൾ സ്വാഭാവികവായിട്ട് നമ്മൾ നമ്മുടെ ഒരു ഭാവന അതിൽ വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഇതിനോടൊരു താൽപ്പര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചുമ്മാതെ പടം വരയ്ക്കുക എന്നുള്ളതല്ലല്ലോ അപ്പം നമ്മുടെ കഴിവ് വികസിപ്പിക്കുകാന്നുള്ള രീതീൽ നമുക്കതിനോട് താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടീട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി യൂറ്റൂബിലക്കെ നോക്കിയാണെങ്കിൽ നമ്മൾ ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ നിങ്ങൾ ആദ്യം ഇമ്പ്രൂവ് ചെയ്ത ചെയ്ത് വരുകാന്നുള്ളതാണ് എനിക്ക് നൽകാനുള്ളൊരു ഉപദേശമെന്ന് പറയുന്നത് അപ്പം ആദ്യമൊക്കെ എണിക്കുവാന്നെങ്കിലും ഒന്നും വരക്കാൻ വലുതായിട്ട് ഒന്നും അറിയത്തില്ല അപ്പം അത് ആ പോരായ്മ എന്താന്ന് മനസിലാക്കി അത് പ്രാക്റ്റീസ്സ് ചെയ്ത് ചെയ്താണ് കുറച്ചൂടെ മെച്ചപ്പെട്ടത് അപ്പം അങ്ങനെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്